ഇപ്പോൾ അങ്ങനെ കന്നുകാലികൾ കൂടുതലായിട്ട് നമ്മൾ വളർത്തുന്നില്ല അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെയായിരുന്നു കൂടുതലും വീട്ടിൽ കന്നുകാലിപോലെയുള്ളതൊക്കെ ഇതാക്കുന്നത് ഇപ്പോൾ വളരെ കുറച്ച് അതായത് നല്ല രീതിക്കുതന്നെ ഇപ്പോൾ വളർത്തുന്നതൊക്കെ കുറവായി ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു രണ്ടെണ്ണമൊക്കെയാണ് വീട്ടിൽ കണ്ടുവരുന്നത് ഇപ്പോൾ പുതിയൊരു കന്നുകാലിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽത്തന്നെ നമ്മൾ പരിപാലിക്കുന്ന എങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ അത് അതിൻ്റേതായ അമ്മയുടെ പാൽ തന്നെയാണ് കുടിക്കാൻ നമ്മൾ അനുവദിക്കുക അഴിച്ചുവിട്ട് കറക്റ്റ് സമയങ്ങളിൽ അത് പാലു കുടിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇതാക്കും കാരണം ജനച്ച ടൈമിൽ അത് എങ്ങനെയായാലും പുല്ലോ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തൊഴുത്തിൽ അതിനു കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുക്കും കൂടുതലും അതിൻ്റെ അമ്മയുടെ അടുത്തു തന്നെയാണ് നമ്മൾ അതിനെ കിടത്താറും കാര്യങ്ങളൊക്കെ ചെയ്യാറ് അതിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ അത് കുടിക്കും ബാക്കിയുള്ള എന്തെങ്കിലും പാലിന് അകിടുവീക്കം പോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ബാക്കി നമ്മൾ കറന്നുകളയുകയാണ് ചെയ്യാറ് പിന്നെ ഇതിനെ പരിപാലിക്കാനായിട്ട് കൂടുതലും ഇത്തരത്തിലൊക്കെയാണ് ചെയ്യുന്നത് കൂടുതലും എന്താ പറയുക അതിനെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കുളിപ്പിച്ച് നല്ല നീറ്റായിട്ടാണ് നമ്മൾ കൊണ്ടുനടക്കുക പിന്നെ അതിനെ സ്വകാര്യം എന്താ പറയുക നല്ല രീതിക്കുതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ അതിനുള്ള ഗ്യാപ്പൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയ്ക്കുതന്നെ അതിനെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്